പൈസ സൂക്ഷിക്കാൻ വേണ്ടി കൂടുതലായിട്ട് ചെയ്യുന്നത് അയൽക്കൂട്ടം ചിട്ടി അല്ലെങ്കില് അക്കൗണ്ടിൽ തന്നെ സൂക്ഷിക്കുക ഇല്ലാന്നുണ്ടെങ്കില് ഗോൾഡെടുത്തിട്ട് ഗോൾഡായിട്ട് ഗോൾഡിന് വേണ്ടിയിട്ട് സേവെയ്ത് വയ്ക്കാം അല്ലെങ്കില് കുട്ടികൾക്കാണെങ്കില് കുട്ടികൾക്കായിട്ടുള്ള ഇൻഷുറൻസെടുത്തിട്ട് അങ്ങനെ സേവെയാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പോള് പൈസ സേവെയ്യാൻ വേണ്ടിട്ട് നമുക്ക് വന്നിട്ട് ഒരുപാട് വഴികള് തന്നെ ഉണ്ട് ഇപ്പോള് എന്താ പറയാ നമുക്കിപ്പോള് ചിട്ടികള് തന്നെ കൂടുതല് കൂടാൻ നോക്കുക ചിട്ടികളിലാണെങ്കില് കൂടെ തന്നെ നമ്മളടയ്ക്കുന്ന എമൗണ്ടിന് നമുക്കൊരു പ്രോഫിറ്റൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ബാങ്കില് ക്രെഡിറ്റെയാന്നു പറയുന്നതും അതുപോലെ തന്നെയാണ് ബാങ്കില് ഡിപോസിറ്റെയ്താലും നമുക്കതിൽ നിന്ന് തന്നിട്ട് ഒരു എമൗണ്ട് നമുക്ക് വരുന്നുണ്ട് അപ്പോള് പൈസ ബാങ്കില് സൂക്ഷിക്കുന്നതാണ് കുറച്ചൂടെ നല്ലതായിട്ടുള്ള കാര്യമെന്ന് എനിക്ക് തോന്നണു പിന്നെ അതുപോലെ തന്നെ അയൽക്കൂട്ടം അതും നല്ലൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ അതുപോലെ നമ്മള് നമ്മളെ കയ്യിന്ന് സെവെയ്ത് വയ്ക്കുന്ന എന്തായാലും നമുക്കെപ്പോഴും എപ്പോഴും എന്താ പറയുക എപ്പോഴും നമുക്ക് ആപ്റ്റായിട്ടുള്ളൊരു കാര്യമല്ല എന്തെന്നു വച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ കയ്യില് നമ്മൾ പൈസ സെവെയുന്നതും അല്ലാതെ നമ്മളൊന്നില് ഡിപ്പോസിറ്റെയ്യുന്നതും തമ്മില് വളരെ വ്യത്യാസമാണ് നമ്മുടെ കയ്യില് കൈ പൈസ ഇരിക്കാണെന്നുണ്ടെങ്കില് അത് നമ്മുടെ കയ്യിലെന്തായാലും ഇരിക്കത്തില്ല നമ്മളെന്തായാലും അത് യൂസെയ്തോണ്ടെ ഇരിക്കും അതേസമയം നമ്മളവിടെലും ഡിപ്പോസിറ്റെയ്തിരിക്കുവാണെന്നുണ്ടെങ്കില് അത് നമുക്ക് സേവിങ്ങ്സായിട്ടെന്തായാലും അതവിടെ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെ സാമ്പത്തികമായ ഉപദേശകരെ അനുഗമിക്കാറുണ്ട് ആ അങ്ങനെ ഞാൻ അനുഗമിക്കാറായിട്ടില്ല പക്ഷെ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലോരോ വീഡിയോസ് കാണാറുണ്ട് പൈസ സേവെയ്യുന്ന കാര്യവും അല്ലെങ്കില് ഓരോ ഗെയിമിങ്ങ്സ് ഒരിതൊക്കെ അല്ലെങ്കില് പൈസ ഉണ്ടാക്കുന്ന കാര്യം അതെങ്ങനെ സേവെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടൊരുപാട് വീഡിയോകള് ഞാൻ കാണാറുണ്ട് യൂ ട്യൂബില് യൂ ട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അങ്ങനെ സോഷ്യൽ മീഡിയകളിലൊരുപാട് കാണാറുണ്ട് പക്ഷെ ഇതുവരെ ഞാനങ്ങനെ വിഡിയോസൊക്കെ കാണാറുണ്ടെന്നൊള്ളതല്ലാതെ അങ്ങനെ ഒരു കാര്യത്തിലോടനുഗമിക്കാനായിട്ട് ഞാൻ നിന്നിട്ടില്ല പിന്നെ ഞാൻ കൂടുതലും സേവെയുന്നതിൻ്റെ കാരണമെന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് കൂടുതലും ചിട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ നമ്മള് പാസ് ബുക്ക് ഇപ്പോള് അയൽക്കൂട്ടം കുടുംബശ്രീ ഇങ്ങനെ പറയുന്ന കാര്യങ്ങള് ജനശ്രീ ഇങ്ങനെ പറയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോള് ഇതിലൊക്കെ തന്നെയാണ് നമ്മളിത് വന്നിട്ട് പൈസ വന്നിട്ട് സേവെയ്ത് വയ്ക്കുന്നത് അല്ലാതെ അല്ലാതെ കയ്യിൽ കൂടുതലായിട്ട് സേവെയ്യാറില്ല ബാങ്കില് തന്നെയാണ് കൂടുതലായിട്ടും സേവെയാ പിന്നെ കൂടുതല് ചെയ്യുന്നതെന്നു വച്ചിട്ടുണ്ടെങ്കില് ഗോൾഡെടുത്ത് സെവെയ്യുന്നതാണ് ചെയ്യുന്നത് കുറച്ചെമൗണ്ട് അധികം ഉണ്ടെന്നൊണ്ടെങ്കില് ഗോൾഡെടുത്ത് വയ്ക്കാറാണ് പതിവ് അതാവുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള കാര്യത്തിനാണെങ്കിലും യൂസ്ഫുള്ളാണ് പൈസ ആയിട്ട് നമ്മുടെ കയ്യിൽ വെറുതെ ഇരിക്കുമ്പോഴത്തേന് അതിങ്ങനെ നമ്മള് വെറുതെ എന്തിനേലുമൊക്കെ യൂസെയ്തോണ്ടിരിക്കും അതേസമയം ഒരു ഗോൾഡെടുത്ത് വയ്ക്കുകയോ അല്ലെങ്കില് അങ്ങനെ എന്തെങ്കിലും ചെയ്തുവയ്ക്കുകയാണെന്നുണ്ടെങ്കില് ഗോൾഡെടുത്തിട്ട് ബാങ്കിലാണേലും ബാങ്കില് ലോക്കറില് സെവെയ്ത് വച്ചിരുന്നാലുമതും നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോള് അങ്ങനെ ചെയ്യുന്നതും നല്ലൊരു കാര്യം തന്നെയാണ്